ഇന്ത്യയിലെ ഏറ്റവും ജനപ്രിയമായ കായിക വിനോദങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഫുട്ബോൾ ക്രിക്കറ്റ് ഹോക്കി സ്വിമ്മിംഗ് അത്ലെറ്റ്സ് വോളിബോൾ അങ്ങനെ പല പല കായിക വിനോദങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് അതിലൂടെ അതിൽ സ്പോർട്സ് ഫൂട്ബോളിലൂടെ പ്രശസ്തരായവരാണ് കറുത്ത മുത്ത് എന്നറിയപ്പെടുന്ന ഐ എം വിജയൻ സാർ ഇന്ത്യൻ ടീം ക്യാപ്റ്റൻ ആയിരുന്നു അദ്ദേഹം പിന്നീട് ഇപ്പോഴത്തെ ഇന്ത്യൻ ടീം ക്യാപ്റ്റൻ ആയ ആയിരുന്ന സുനിൽ ഛേത്രി ജോപ്പോൾ അഞ്ചേരി അങ്ങനെ പല പല ഫൂട്ബോൾ താരങ്ങളുണ്ട് സി കെ വിനീത് അബ്ദുൾ സഹൽ അബ്ദുൾ സമദ് രാഹുൽ കെ പി ഇപ്പോൾ അങ്ങനെ പല പല ആൾക്കാരാണ് ഫൂട്ബോളിലൂടെ പ്രശസ്തരായവർ പിന്നെ ജാവലിൻ ത്രോയിലൂടെ പ്രശസ്തരായ ഒരു റിക്കോർഡുകളോടെ പ്രശസ്തരായ ഒരു ഒരു ഒരു മഹത് വ്യക്തിയാണ് നീരജ് ചോപ്ര റെകോർഡുകളാണ് അദ്ദേഹം സൃഷ്ടിച്ചത് ജാവലിങ്ങിലൂടെ സൃഷ്ടിച്ച ആ റിക്കോർഡ് നികത്താൻ ഇനിയിപ്പോൾ ഇവിടെ ആരുമില്ല